ഹലോ ആ ഇത് ജോയി അല്ലേ ആ ഞാൻ ആക്വച്ചെലി നമ്മുടെ മാനേജരാണ് വിളിക്കുന്നത് ആ എന്നാ ഞാൻ വിളിച്ചത് നമ്മൾ ഈ മാസം നമ്മുടെ പെർഫോമൻസ് വളരെ അപ്രീഷബിളായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ് കാരണം കമ്പനി പോലും പ്രതീക്ഷിച്ചതിനേക്കാട്ടിൽ ഒക്കെ ഒരുപാട് ഉയർന്ന ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ ഒക്കെ കഠിനാധ്വാനം കൊണ്ടാണ് ആളുകൾക്കിടയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സ്വാധീനം ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ നിക്ഷേപങ്ങൾ സമാഹരിക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ കമ്പനി കമ്പനിയുടെ പേരിലുള്ള എല്ലാ എന്താണ് പറയുന്നത് ആശംസകളും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചത് അപ്പോൾ നമുക്ക് തുടർന്നും നമുക്ക് ആ ഇല്ല അത് അങ്ങനെയാണ് ഇപ്പം എന്താണെന്ന് അറിയാമോ നമുക്ക് ഉവ്വ ഉവ്വ ഏ

മ്മ് തീർച്ചയായും തീർച്ചയായിട്ടും അല്ലാതെ കമ്പനി അത് റിയലൈസ് ചെയ്യുന്നുണ്ട് കാരണം ഒരാൾ അത്രയേറെ ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മൾ ഈ നമ്മൾ ചെയ്തിരുന്നതിനേക്കാട്ടിലും കൂടിയ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരാൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ കമ്പനിയുടെ അടുത്ത മാസം കൂടുന്ന ഡയറക്ടർ ബോർഡിൽ ഈ വിഷയം നമ്മൾ അവതരിപ്പിക്കും ഒരു ന്യൂ കമർ എന്നുള്ള നിലയിൽ ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെക്കാൾ കൂടുതലായിട്ട് നമുക്ക് നിക്ഷേപം സമാഹരിക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അടുത്ത ബോർഡ് മീറ്റിങ്ങിൽ ഒന്ന് നിങ്ങളുടെ ഒരു പ്രൊമോഷനെ കുറിച്ചും രണ്ട് അതിനനുസരിച്ച് അനുപാതികമായിട്ടുള്ള പേ ഹൈക്കിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ട് അത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ എനിക്ക് ഇപ്പോൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അടുത്ത മാസം ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിനേക്കാൾ കൂടിയ ഒരു ടാർഗറ്റ് തന്നാലും അത് അച്ചീവ് ചെയ്യാം എന്നുള്ള വിശ്വാസം ഉണ്ടോ ആ ശ്രമം മതി ശ്രമം മതി

ആ ഞാൻ ഒരു കാര്യം ഒരു കാ ഒരു ആ തീർച്ചയായിട്ടും അത് തന്നെയല്ല ഞാൻ ഇപ്പം ഇതിനകത്ത് ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിപ്പം നമുക്ക് ഇതിനേക്കാട്ടിലും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രൊപ്പോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർ അങ്ങോട്ട് വേണമെങ്കിൽ ശരിയാക്കി ഒന്നെങ്കിൽ ജില്ലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ ജില്ലയുടെ തന്നെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്കോ നിങ്ങളുടെ ഏരിയ ഓഫ് റെസ്പോൺസിബിലിറ്റി മാറ്റണം എന്നുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്താം നമുക്ക് അടുത്ത ബോർഡ് മീറ്റിങ്ങിലത് തീരുമാനിച്ചിട്ട് അതും കൂടി അറിയിക്കാം കാരണം ഏതായാലും പിന്നെ ഇപ്പോൾ അത് ആ

തോട്ടം മേഖലയാണോ സാലറീഡ് ആയിട്ടുള്ള ആളുകൾ അല്ലേ

ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ തീർച്ചയായിട്ടും നമുക്ക് പരി നമുക്കതേ ആ അപ്പോൾ നമുക്കത് നമുക്കത് പരിഗണിക്കാം കേട്ടോ അതിന് കുഴപ്പമില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കി അടുത്ത ബോർഡ് മീറ്റിങ്ങിന് ശേഷം ഞാൻ വീണ്ടും വിളിച്ചോളാം ബന്ധപ്പെട്ടോളാം ആ ആ അതുപോലെതന്നെ ഒരു ഒരു തവണ കൂടി ഈ കമ്പനിയുടെ എല്ലാ എല്ലാവരുടെയും പേരിലുള്ള ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ ശരി ശരി ശരി ഓക്കേ ഓക്കെ താങ്ക്യൂ